കല്യാണമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷത്തിൻറ്റെം ആഘോഷത്തിൻറ്റെം ദിവസമായിരുന്നു അന്ന് കാലത്ത് പണ്ട് കാലങ്ങളിൽ അന്ന് നമുക്കൊരുപാട് സന്തോഷം തന്നൊരു നിമിഷങ്ങളായിരുന്നൊരു ഒരു ആരുടെയെങ്കിലും ഒരു കല്യാണം നമ്മുടെ കുടുംബത്തിലൊരു കല്യാണം വാരുകാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കല്യാണമെന്ന് പറയുമ്പഴേ എല്ലാവർക്കും ഒത്തു കൂടാം ഒരുമിച്ച് ആർത്തുല്ലസിക്കാം എന്നൊരു വിചാരമായിരുന്നെല്ലാവർക്കുമുള്ളത് അന്ന് നമ്മളൊരുമിച്ച് കല്യാണ സമയത്തെ കല്യാണ ദിവസങ്ങൾ മൂന്നാലു ദിവസം അടുപ്പിച്ച് നിൽക്കുന്ന ഒരുപാട് വിശേഷങ്ങളുള്ള ദിനങ്ങളായിരിക്കും ആ ദിവസങ്ങളിലെല്ലാം നമ്മുടെ ബന്ധുക്കാരും അയൽക്കാരും നാട്ടുകാരും സുഹൃത്തുക്കളും അങ്ങനെ ഒട്ടനവധി എല്ലാവരും നമ്മുടെ വീട്ടിലൊത്തു കൂടുകയും രാവിലെ തൊട്ട് രാത്രി വരെയും മൂന്ന് നാല് ദിവസം നീണ്ട് നിന്നാഘോഷങ്ങളും പാചകവും വാചകവുമൊക്കെ ആയിട്ട് നല്ല മനോഹരമായി കൊണ്ട് നടന്നിരുന്ന ദിനങ്ങളായിരുന്നു പാചകം അതിൽ മുന്നേ നിൽക്കുന്നൊരു കാര്യമായിരുന്നു പാചകം പാചകത്തിലായിരുന്നു എല്ലാവരും എല്ലാവരുടെയും സന്തോഷം ഏറ്റോം കൂടുതൽ പങ്ക് കൊണ്ടിരുന്നത് നമ്മളെപ്പോഴും പറയുന്നത് പോലെ മുറ്റത്തൊരു പന്തലിട്ട് നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കാരും എല്ലാവരും കൂടിച്ചേർന്ന് ആഘോഷമാക്കി തീർക്കുമായിരുന്നു ആ കല്യാണ രാവുകൾ അന്നേരം ആ സഭകളിൽ ഇരുന്ന് പാചകം ചെയ്യുക കുറച്ച് പേർ പച്ചക്കറി അരിയുക കുറച്ച് പേർ അയിനരപ്പ് കൂട്ടുക കുറച്ച് പേർ കറികൾ പാചകം ചെയ്ത് കൊണ്ടേ ഇരിക്കുക അങ്ങനെ എല്ലാവരും ഒത്തു ചേർന്ന് സന്തോഷം കൊണ്ടായിരുന്നു പാചകിച്ച് കൊണ്ടിരുന്നത് ഇന്ന് പാചക ആ പാചകങ്ങളിൽ കൂടെ തന്നെ ആയിരുന്നു നമ്മുടെ കല്യാണത്തെ നമ്മൾ വല്യൊരാഘോഷമാക്കി തീർത്തിരുന്നത് പക്ഷേ ഇന്ന് എല്ലാം മാറി കഴിഞ്ഞിരിക്കുന്നു കാലം പോകുന്തോറും കോലം മാറുമെന്ന് പറയുന്നത് പോലെ നമ്മുടെ കാലം മാറിയതും കല്യാണത്തിൻ്റെ ഓരോ ആഘോഷങ്ങളും പല രീതി രീതികളിലായി മാറി ആഘോഷങ്ങൾ നിരവധിയുണ്ട് ഇന്ന് പണ്ടത്തേനേകാട്ടിക്കാൾ ഒരുപാടാഘോഷങ്ങളാണ് നടത്തി കൊണ്ട് വരുന്നത് പക്ഷേ ഒന്നും ബന്ധുക്കാരോ നാട്ടുകാരോ വീട്ടുകാരോ ആരും ഒത്തു ചേർന്നിരുന്നില്ല എല്ലാവരും അവരവരുടേതായ പല വീടുകളിൽ തന്നെയാണ് എല്ലാവരും കല്യാണ സമയത്ത് വരുന്നു ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു തിരികെ മടങ്ങുന്നു എന്നാലീ പാചകമായിരുന്നു അന്ന് കാലത്ത് നമ്മളെ എല്ലാവരേം ഒത്തു ചേർത്തിരുന്നത് ഇന്ന് പാചകം വെറും വാചകമായി മാറി കഴിഞ്ഞു നമ്മുടെ എല്ലാവരും ഈ കാലത്ത് കാറ്ററിങ്ങിനായിട്ട് കൊടുക്കുകയാണ് ഫുഡെല്ലാം ആഹാരമെല്ലാം പാചകം ചെയ്യാൻ പുറത്തുള്ള ആളുകളെ ഏൽപ്പിച്ച് കാശ് കൊടുക്കുന്ന സമ്പ്രദായത്തിലോട്ടാണിന്ന് മാറിയിരിക്കുന്നത് ഇന്ന് എല്ലാ വീട്ടിലും എല്ലാവരുടേം കയ്യിൽ പണമുണ്ട് പണമാണ് വലുത് എന്നുള്ള വിശ്വാസത്തോട് കൂടി എല്ലാവരും പണം കൊണ്ട് തന്നെ എല്ലാം ചെയ്യിക്കണം പണം വേണം പക്ഷേ സ്നേഹബന്ധങ്ങളവിടെ കുറയുകയായിരുന്നു നമ്മളിന്ന് ഈ കാണുന്നതു പോലെ എല്ലാ സ്നേഹബന്ധങ്ങളും നിലനിന്നിരുന്നത് നമ്മളീ പാചകം ചെയ്യുന്ന സമയത്തെല്ലാവരും ഒരുമിച്ച് ഒത്തു കൂടുമ്പോഴായിരുന്നു ഇന്ന് അങ്ങനെയുള്ള ഒത്തു കൂടലുകളെല്ലാം കുറഞ്ഞു ഇന്നീ കാറ്ററിങ്ങിന് കൊടുക്കുന്നതോട് കൂടി ഫുഡ് ആരോ ഉണ്ടാക്കി ആരോ കറക്ട് സമയത്ത് കൊണ്ട് തരുന്നു എല്ലാവരും കഴിക്കുന്നു എല്ലാവരും ഒത്തു കൂടുന്നു ആഘോഷങ്ങളെല്ലാവരും നോക്കിയിരിക്കുന്നു പങ്കെടുക്കുന്നു കഴിയുന്നു ചടങ്ങുകൾ തീരുമ്പോൾ പോകുന്നു അല്ലാതെ പണ്ടത്തെ പോലെ രാപ്പകൽ ആഹാരം ചെയ്യുന്ന പാചകം ചെയ്യുന്ന സമയത്ത് ആർത്തുല്ലസിച്ച് പാട്ടും പാടി ഒരു നൃത്തവും ഒക്കെ കാഴ്ചവച്ച് എല്ലാവരും സന്തോഷിച്ചത് പോലെ ഇന്ന് എവിടെയും കാണുന്നില്ല വളരെയധികം അത് കുറഞ്ഞിരിക്കയാണ് ആ കാഴ്ചകളക്കെ തുച്ഛം തുച്ഛമാന കുറച്ച് വീട്ടുകളിൽ മാത്രമേ നമുക്കത് കാണാൻ കഴിയുന്നുള്ളു ഏറ്റവും കൂടുതലെന്നെ സങ്കടം സങ്കടത്തിലാഴ്ത്തിയ കാര്യമാണത് നമ്മളെന്നും ഞാനെൻ്റെ ഒരാഗ്രഹവാണ് എപ്പോഴും കല്യാണത്തിനെല്ലാവരും ഒത്തുകൂടി എല്ലാവരും പാചകം ഒരുമിച്ചെല്ലാവരുടെയും കഴിവുകളൊത്തു ചേർന്ന് എല്ലാവരുടെയും രുചി ഒരുമിച്ച് ചേർത്ത് കൊണ്ട് പാചകത്തിലൂടെ നമ്മുടെ കല്യാണത്തെ മനോഹരമാക്കുന്ന രീതിയിലാണ് എനിക്കിഷ്ടം അന്നും ഇന്നും ഞാൻ അതുകണ്ടാണിഷ്ടപ്പെട്ടിരുന്നത് പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്കതൊന്നും കാണാൻ കഴിയുന്നില്ല എല്ലാവരും അവരുടേതായ സുഖഭോഗങ്ങൾ തേടി മാറുകയാണ് ഈ അവനോൻ്റെ അവനവനെന്നുള്ള വിചാരത്തോട് കൂടി സ്വന്തം കാര്യമെന്ന രീതിയിലോട്ടെല്ലാവരും

കല്യാണം വർഷത്തിലല്ലേ കല്യാണം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്നൊരു മനോഹരമായ കാര്യമാണ് ഇവിടെ വർഷാവർഷമൊന്നും നമുക്കിങ്ങനെ ആഘോഷങ്ങൾ വലുതായി വരണമെന്നില്ല ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കാരുടെയിൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴൊക്കെയായിരിക്കും ആരുടെയെങ്കിലുമൊക്കെ ഒരു കല്യാണം വരുന്നത് ആ കല്യാണം നമ്മുടെ ബന്ധുക്കാരും കൂട്ടുകരും നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും കൂടെ ചേർന്ന് ആഘോഷമാക്കേണ്ട ഒരു രാവാണെന്നാണ് എൻ്റെ വിശ്വാസം അതിനാൽ തന്നെ ആ ഒരു കല്യാണത്തെ ഏറ്റോം കൂടുതൽ നല്ല മനോഹരമാക്കി തീർക്കേണ്ടത് ആഹാരത്തിലൂടെയാണ് ആഹാരം കഴിച്ച് വയറ് നിറയുന്നാളുകളുടെ മനസ്സ് നിറയും ആ മനസ്സ് നിറയുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം അതാണ് നമ്മുടെ കല്യാണം വിജയിക്കുന്നത് നമ്മുടെ കല്യാണത്തിന് ഈ മനസ്സ് നിറയിക്കണമെങ്കിൽ ആഹാരം എത്ര കാറ്ററിങ്ങിന് കൊടുത്താന്ന് പറഞ്ഞാൽ പോലും നമ്മളെല്ലാവരും ഇരുന്ന് ഒത്തു ചേർന്ന് ഉണ്ടാക്കി കഴിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു സ്നേഹവും ആ ഒരു മനോഹര കാഴ്ചയൊന്നും പിന്നീട് കാണുകയില്ല എനിക്ക് അന്നും ഇന്നും എല്ലാം ഞാനാഗ്രഹിക്കുന്നത് ഈ കല്യാണരാവുകളിലെപ്പോഴും ഇനിയാണെങ്കിൽ പാചകം നമ്മുടെ വീട്ടുകാരും ബന്ധുക്കളും എല്ലാവരും കൂടിച്ചേർന്ന് ചെയ്യണമെന്നാണ് അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മളുടെ ഒരു സന്തോഷം കല്യാണത്തെ ആ പൂർണ്ണ നിലയിലെത്തിച്ചു എന്ന് പറയാൻ കഴിയുന്നത് ഇന്ന് കാറ്ററിങ്ങിന് കൊടുക്കുന്ന ഈ സമൂഹത്തിൽ ആ ഒരു സ്നേഹബന്ധത്തെ കുറഞ്ഞ് വരുകയാണ് കാറ്ററിങ്ങിന് കൊടുക്കുന്നു കാറ്ററിങ്ങിന് നമ്മളതിന് പൈസ കൊടുക്കുന്നു ആ ഒരു ഏർപ്പാടിലേക്കാണ് നടന്ന് പോകുന്നത് എന്നാൽ ആഹാരം പാചകം ചെയ്യുന്നത് നമ്മളിത്രേം പേരും കൂടി ചേർന്നിരുന്നായിരുന്നെങ്കിൽ അതെന്തും വേണ്ടി മനോഹരമാക്കി തീർത്തേനെ നമുക്കെത്രയോ സംസാരങ്ങളും കാര്യങ്ങളിലൂടേം കടന്ന് പോയേനെ ഇങ്ങനെ സംസാരിച്ചും ഉല്ലസിച്ചും എല്ലാവരും കുറഞ്ഞ് എല്ലാവരുടെയും രുചിയും ചേർത്ത് കൊണ്ട് നമുക്കാ പാചകം ചെയ്യുന്നാഹാരം പകർന്ന് കൊടുത്തെല്ലാവരും കഴിക്കുമ്പോൾ അത് എന്ത് മനോഹരമായൊരു കാഴ്ചയാണ് ആ കാഴ്ച കണ്ട് തന്നെ നമ്മുടെ മനസ്സും ഹൃദയവുമെല്ലാം നിറയും അപ്പത്തന്നെ കല്യാണം ഒരു പൂർണ്ണം എന്നതിൽ എത്തിച്ചേരും എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മളങ്ങനൊന്നും കാണുന്നില്ല അതിലെനിക്കൊരുപാട് വിഷമമുണ്ട് എങ്കിലും നമുക്ക് ഇപ്പം എല്ലാവർക്കും ഇപ്പം എല്ലാവർക്കും വീട്ടിൽ പണമുണ്ടായാൽ തന്നെ എല്ലാവരും എന്ത് ചെയ്യാനാ കാറ്ററിങ്ങ് അല്ലെങ്കിൽ ആർക്കെങ്കിലൊക്കെ ഓർഡറ് കൊടുക്കുക ഫുഡെത്തിക്കുക അതിലേക്ക് പോവുകയാണ് മറ്റുള്ളവർക്ക് വരുമാനത്തിലേക്ക് മാറുകയാണ് അല്ലതെ ഒരുമിച്ചുണ്ടാകുന്ന ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു ഉത്സാഹ രാവൊക്കെ മാറിക്കഴിഞ്ഞു